എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട മീൻ മത്തിയാണ് മത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളത് ഒരു മീനാണ് എന്താ പറയുക നമുക്കത്യാവശ്യം പ്രൊട്ടീനും കാര്യങ്ങളൊക്കെ മത്തിയിൽ നിന്ന് കിട്ടും മത്തി വറുത്തതാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതലിഷ്ടം കറി വച്ചത് വലിയ ഇഷ്ടം ഇല്ലെങ്കിലും മത്തി വറുത്തതാണ് കൂടുതലിഷ്ടം പിന്നെ അയല ഉണ്ട് പക്ഷെ അയല കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വയറ്റിൽ പല പ്രശ്നങ്ങളും സ്ഥിരമായിട്ട് അയല കഴിക്കുകയാണെങ്കിൽ വയറ്റിൽ പല പ്രശ്നങ്ങളും വരും അപ്പോൾ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വേറെ ബാക്കിയുള്ള കിളിമീനുണ്ട് പിന്നെ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകളാണെങ്കിൽ വാര പിന്നെ ചെമ്പല്ലി അങ്ങനത്തെ മീനിൻ്റെ മുഷി അങ്ങനത്തെ കുറേ മീനുകളുണ്ട് അതിൽ ചെമ്പല്ലി ആണ് വലിയൊരു മീൻ അതായത് ഒരു വെറൈറ്റി ഒരു കളറാണ് ചെമ്പല്ലിക്ക് അത് നമ്മൾ വളർത്തുന്നതും എന്താ പറയുക ചെമ്പല്ലി പോലത്തെ മീനുകളാണ് വളർത്തുന്നത് ഫിലോപ്പിയെന്നു പറയും ഫിലോപ്പിക്ക് നല്ല നീട്ടം ആണ് അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിയിട്ട് വളർത്തി അങ്ങനെ വലുതാക്കിയിട്ട് ഉള്ള മീനുകളാണ് അത്